മുടിയുടെയും ചർമ്മത്തിൻ്റെയും സംരക്ഷണത്തിനായിട്ട് നമ്മുടെ നാട്ടില്ത്തന്നെ ഒരുപാട് പച്ച വൈദ്യങ്ങളൊക്കെയുണ്ട് അതില് മുടിക്കുള്ളതെന്നു പറയുമ്പോള് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് തലയില് തേക്കാന് ഉപയോഗിക്കാറുള്ളത് പിന്നെ ചെമ്പരത്തിത്താളിയൊക്കെ ഒലച്ച് തലയില് തേക്കാറുണ്ട് അതുകൊണ്ട് മുടീൻ്റെ ഉള്ളില് നല്ല തണുപ്പു കിട്ടാനും അതു നന്നായിട്ട് വളരാനുമൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ തുളസിയൊക്കെ തലയില് അരച്ചുതേക്കുന്നതും തുളസിയിലൂടെയും മുടിക്കു നല്ല തണുപ്പു കിട്ടുകയും അതു നല്ലവണ്ണം വളരുകയും ചെയ്യും ഉലുവയും കഞ്ഞിവെള്ളവും ഒക്കെ തലയില് തേച്ചാല് തലയ്ക്കു നല്ല തണുപ്പു കിട്ടുകയും നല്ലവണ്ണം മുടി വളരുകയുമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് മഞ്ഞളും ആര്യവേപ്പിലയും നല്ലവണ്ണം അരച്ചു മുഖത്തിടാറൊക്കെയുണ്ട് കറ്റാർ വാഴയൊക്കെ ഇതാക്കി മുഖത്തിടാറൊക്കെയുണ്ട് തുളസിയൊക്കെ അരച്ച് പാടുകളും ഇതൊക്കെ മാറാനായിട്ട് മുഖത്തൊക്കെ ഇടാറുണ്ട് അങ്ങനെ മുടീൻ്റെയും ചർമ്മത്തിന്റെയും സംരക്ഷണത്തിനായിട്ട് ഒരുപാടു കാര്യങ്ങള് ഉപയോഗിക്കാറുണ്ട് പച്ചമരുന്നുതന്നെ